അപ്ളി ടോപ്പിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എന്തെന്ന് വെച്ചാൽ വെച്ചോണ്ട് രണ്ടാമത്തെ ഫോണ് അപ്പം ആദ്യം ഉപയോഗിച്ച് ഫോൺന്ന് വെച്ചാൽ നമ്മുടെ ഷവൗമി ഷവൗമിന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ തന്നെ ബെസ്റ്റായിട്ടുള്ള ഒരു ശവൊമീടെ തന്നെ റെഡ്മി നയൻ എന്നൊരു ഫോണായിരുന്നു അപ്പം റെഡ്മി നയൻന്ന് പറഞ്ഞ ഫോൺ അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു അപ്പം എനിക്ക് കിട്ടിയന്ന് വച്ചിണ്ടച്ചു ഒരു ഓറഞ്ച് കളർ പോലെ അപ്പം ഈ ഫോൺ കിട്ടിയന്ന് വെച്ചിട്ടുണ്ട് മെയിനായിട്ട് കിട്ടിയത് അപ്പം എനിക്ക് ടെൻത്ത് കഴിഞ്ഞപ്പം ഫുള്ള് എ പ്ലസായിരുന്നപ്പം ടെൻന്ത് കഴിഞ്ഞപ്പോഴ്ത്തേനും വീട്ടിലും തന്നൊരു ഫോണപ്പം ആദ്യം കിട്ടിയൊരു ഫോണെന്ന രീതിയിൽ എല്ലാ ഫോണുകളെ പോലെ തന്നെ എനിക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഫോണായത് കാരണം എന്ന് വെച്ചുണ്ടെൽ അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീസണ്ടായിട്ടുള്ള പെർഫോമൻസ് അത്യാവശ്യം ഫോട്ടോ ആൻഡ് വീഡിയോ ക്വാളിറ്റി എല്ലാം ഉണ്ടെന്ന് ഫോണാണ് അപ്പം അതിന്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടേൽ വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫോണായിട്ട് ഇത് എറൗണ്ട് ഒരു നയൻ തൗസണ്ട് റ്റൂ ടെൻ തൗസണ്ട് റുപ്പീസുള്ള ഒരു ഫോണാണ് അപ്പം അത്യാവശ്യം നല്ലൊരു ടക്കോൻ്റെ ഒരു ഹിലിയോ പ്രൊസസ്സർ ആണതിനകത്തിരുന്നപ്പം സിക്സ് ജിബി സിക്സ് ജി അല്ല സിക്സ് ജിബി നോൺ സിക്സ് ജിബി ഫോർ ജിബി സിക്സ്റ്റി ഫോർ ജിബി റാം ഇൻറെറ്റ് സ്റ്റോറേജുള്ള ഒരു ഫോണായിരുന്നു അപ്പം അതായത് ആൻഡ്രോയിഡ് ടെൻ ഓർ ലവൻ ഐ തിങ്ക് ടെൻ ആൻഡ്രോയിഡ് ടെൻ അപ്ഡേഷൻ ഫോണ് ഇപ്പ രെണ്ട് പ്രാശ്യം ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത്ന്ന് വെച്ചിട്ടുണ്ടെങ്കില് മെയിനായിട്ട് ഞാൻ ചെയ്തപ്പം ടെൻത്തില് പഠിച്ചോണ്ടിരുന്നപ്പോ വാങ്ങിച്ച ഫോണപ്പ എൻ്റെ അക്കാടമിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അതായത് പഠിത്തം നിലവിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാ മെയിനായിട്ട് ഞാൻ ഫോൺ യൂസ് ചെയ്തപ്പം അത്യാവ്യശ്യം ഗെയിമ്സോക്കെ കളിക്കുവായിരുന്നപ്പം ഗെയിംസൊക്കെ കളിക്കുമ്പത്തെനും അത്യാവശ്യം നല്ല രീതിയില് കളിക്കാൻ പറ്റുമെന്ന രീതി ഒരു പബ് ജി കളിയാണേ ഇപ്പോ ഒരു തർട്ടി എഫ് പി എസ് അറ്റ്ലീസ്റ്റ് തേർട്ടി എഫ് പി എസ് നല്ല രീതിലുള്ള പെർഫോമൻസ്സാണ് അപ്പം സ്റ്റോറേജിൻ്റെ ഇഷ്യുണേ ഫോണുള്ള അത്യവശ്യം ബൾക്കായിട്ടുള്ള ഫോണ അപ്പം നമ്മൾക്ക് ഹാൻഡില് ചെയ്യാനായിട്ട് അതായത് വല്യൊരു ഫോണായിരുന്നു ഇപ്പം പിടിക്കാനായിട്ട് അത്ര സെറ്റപ്പ് വല്യ കൊഴപ്പില്ലാത്ത രീതിയില ഒരു നൈസട്ടിൻ്റെ ഫോണായിരുന്നു അപ്പം അതന്ന് വെച്ചിട്ടുണ്ടെല് എന്നെ സംബന്ധിച്ചോണം കാരണം ഞാനാ ഫോണിനകത്ത് അത്യാവശ്യം എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും അതൻ്റെ ഫ്രണ്ട്സ് ഫോട്ടോസ് അതായത് ഫാമിലിയിലൂട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളരു ഫോണായിരുന്നു എൻ്റെ കാരണം എനിക്കത്ര ഇഷ്ടമുള്ളൊരു ഫോണായിരുന്നു കാരണം എൻ്റെ കോൺടാക്ട്സ് ഒത്തിരി കോൺടാക്ട്സ് മെമ്മറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ഫോണായിരുന്നു അത് അപ്പം അതന്ന് വെച്ചിട്ടുണ്ടെ അയിനകത്തിപ്പം എറൗണ്ട് പത് ഒരു നയൻ് ത്രിപ് നയൻ ഹൺഡ്രഡ് എറൗണ്ട് ഫോട്ടോസ് ക്യാമറയിൽ ഫോട്ടോസ് ഉണ്ടാവും ഒരു ഫോട്ടി ഫൈവ് ഓ വീഡിയോസുണ്ടായിരിക്ക ഫോണിനകത്ത്പ്പം ഒരു സിം കാർഡാണൊണ്ടായിരുന്നെ ജിയോടെ ഒരു സിം കാർഡയിനകത്ത് ഉണ്ടായിരുന്നെ അപ്പൊ ഇത്രയും ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ട് അപ്പം മെയിനായിട്ടുണ്ടന്ന വീട്ടുകാർടേം അങ്ങനുള്ള പിക്സ് അങ്ങനുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ ആയിരുന്നു പിന്നൊണ്ടായിരുന്നെ ടൂറിന് പോയപ്പം പിന്നെ പ്ലസ്ടുലെ ടൂർന് പോയപ്പത്തെനും കൊണ്ടായിരുന്നപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെക്കെ പിക്സ് മെമ്മറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഫോണിനാത്തന്നെ കെടന്നു അപ്പം എന്നെ സംബന്ധിച്ചടത്തോളം അത്യാവശ്യം നല്ല രീതിയിലൊരു പെർഫോമൻസ് തന്നി അത്യാവശ്യം നല്ല രീതിയിലൊരു കിടുക്കനായിട്ടുള്ളൊരു ഫോണായിരുന്നു അത് അപ്പം എൻ്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കവാണെ ആ ഫോൺ എനിക്ക് അത്ര യേറെ ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു പിന്നച്ചച്ചൻ സാധാരണ ദിവസ തൊടക്കം യൂസ് ചെയ് എടുത്തപ്പ എനിക്ക അനത്തെ വല്യ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ അത് ഞാൻ പതുക്കെ പതുക്കെ പഠിച്ചു വന്നു പിന്നെ അതിന്ന് വച്ചിട്ടുണ്ടെ ഷവോമിടെ ഫോൺ അത്യാവശ്യ നല്ല രീതിലുള്ള സെക്യൂരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങള് ഫോണിനകത്തുണ്ടായിരുന്നു അപ്പൊ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോണിനകത്തുണ്ടരുന്നനാലും പിന്നെ അത്യാവശ്യം നല്ല രീതിയില് പെർഫോമൻസ് കാഴ്ച വെച്ച ഒരു ഫോണായിരുന്നു അത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഫോണായിരുന്നു ഷവോമി റെഡ്മി നയൻ എന്ന് പറയുന്നത് അപ്പം റെഡ്മി നയൻ എന്ന് പറയുന്ന ഫോണെന്ന് വെച്ചിട്ടുണ്ടേല് എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടതാണ് കാരണം എൻ്റെ പേഴ്സണൽ യൂസിന് അതായത് എൻ്റെ അത്യാവശ്യമായിട്ടുള്ള യൂസുകൾക്കൊക്കെ ഒത്തിരിയേറെന്നെ ഹെൽപ്പേയ്തിട്ടുള്ള അത്യാവശ്യം കിടുക്കനായിട്ടുള്ള ഒരു നൈസ് ഒരു ഫോണായിരുന്നു നല്ലൊരു പ്രൊസസ്സറായിരുന്നു ആ ഫോണിനകത്തൊണ്ടായിരുന്നെ പിന്നെ യൂസില് നല്ലൊരു ഇതായിരുന്നു ഫോണിനകത്തുണ്ടായിരുന്നെ അപ്പം അതിനായിട്ട് അതിനെക്കുറച്ച് മെയിനായിട്ട് പറയാനായിട്ട് അതാണ് ഉള്ളതിപ്പം ഇപ്പ ഞാനിപ്പം അതായത് കോളേജില് സെക്കൻഡ് ഇയർ പാതി വരെ എത്തിയത് ഫോൺ ഡാമേജ് ആയിപ്പോയി അതാണിപ്പം എനിക്ക് ഒരിതുള്ളേ അപ്പം കാരണം എൻ്റ ഒത്തൊരു കോൺടാക്ട്സ് ഫോട്ടോസ് മെമ്മറീസ് അങ്ങനുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തായി പോയി പെട്ടന്ന് ഡാമേജ് അപ്പൊ എനിക്കത് ഒന്നോടെ പഴയ രീതിയിലേക്ക് ശെരിയാക്കണമെന്നുണ്ട് ഇപ്പം ഇപ്പ്രസായിപ്പം ഞാൻിപ്പ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഷവോമീടെ തന്നെ സബ്ബ്രാൻഡായിട്ടുള്ള പോക്കോ പോക്കോടെ സി സിക്സ്റ്റി വൺ എന്ന് പറഞ്ഞൊ ഒരു മോഡലാണ് അപ്പം ഇതിനകത്ത് ചിപ്പിരിക്കുന്ന ഹീലിയോ ജി തേർട്ടി ഫോർ എന്നൊരു പ്രൊസസ്സറാണ് ഈ ഫോണത്തിരിക്കുന്ന എറൗണ്ട് അതായത് അത്യാവശ്യം നല്ല രീതിയില് ഇത് ചെയ്യുന്ന ഒരു ഫോണാണിത് എറൗണ്ട് ഫോർ ഇൻഡു സിക്സ്റ്റി ഫോർ ജിബി റാംമാണ് ഈ ഫോം പ്രൊവൈടെയ്യണത് അപ്പം ടെൻ എംബി ക്യാമറ ഫ്രണ്ട് ക്യാം ബാക്ക്യാം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡീസൻറ്റായിട്ടുള്ള പെർഫോമൻസാണ് അതായത് ക്യാമറ പെർഫോമൻസായിക്കോട്ടെ തിങ്ക് വീഡിയോ ഒണ് ഐ റിയലി ലൈക് തെൻ വീഡിയോ പെർഫോമൻസ് എനിക്ക് നൈ നല്ല രീതിയില് നല്ലായിട്ട് തോന്നി കാരണംന്ന് വെച്ചിട്ടുണ്ടെല് ടെൻ ടെൻ എയിറ്റി ഫ്യൂവേസ് തേട്ടി എഫ്പിസാണ് വീഡിയോ ഷൂട്ടെയുന്ന പക്ഷെ ഫോട്ടോ എസ്കിസ് കമ്പയറെയുമ്പോ വീഡിയോക്കൊരു ക്വാളിറ്റി അതായതൊരു ഗ്രേഡിങ് ഒരു കളർ ഗ്രേഡിങ് അല്ലേ നാച്ചുറൽ ടോൺ സിക്കായിട്ടുള്ള അത്യാവശ്യം സ്റ്റെബലൈസായിട്ടുള്ള വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഫോൺസാണെങ്കി അപ്പം സാങ്കേതികമായിട്ടെന്ന് വെച്ചിട്ടുണ്ടേല് മാറിട്ടുണ്ട കാരണം ഇപ്പ യൂസ് ചെയ്യുന്ന ഫോൺന്ന് വെച്ചിട്ടുണ്ടെല് ഷവമിൻ്റെ സബ്ബ്രാൻഡായിട്ടുള്ള ഫോണപ്പം അതിനാത്തുള്ള ജെസ്റ്റേഴസ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെയിം കാര്യങ്ങള ഓൾമോസ്റ്റ് ഒരു നയൻറ്ററി പെർസെൻറ്റേജോ സെയിമാണ് പൊക്കോടെ ഈ മോഡലിനാത്തുള്ളത്പ്പം ഇക്ക്തിനകത്ത് വല്യ ഇതായിട്ട് തോന്നിട്ടില്ല പക്ഷെ ഇതിനകത്ത് കൊറച്ചൂടെ സ്മൂത്തായിട്ടെനിക്ക് തോന്നി കാരണം ഇതിനകത്ത് നമക്ക് സിസ്റ്റിഎഫ്പി അതായത് സിസ്റ്റി ഗഡ്സൊ നൻറ്റി ഹഡ്സൊ രിഫറസ് റേറ്റ്സ് പ്രൊവൈഡെയ്യുന്നുണ്ടിതിനകത്ത് അപ്പം അതാണിതിനകത്ത് എനിക്കൊരു ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയത് അല്ലാതെ വേറൊന്നും എനിക്കിതിനകത്തത്ര കാര്യമായിട്ട് തോന്നിട്ടില്ല പിന്നെ അത്യാവശ്യം നല്ല രീതിയില് പെർഫോമൻസ് ചെയ്യുന്നൊരു ഫോണാണ് പിന്നെ ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ലെവൻ കെടപ്പുണ്ട് അതായത് ആൻഡ്രോയിഡ് ലെവൻ്റെ ഇത് സിസ്റ്റം അപ്ഡേറ്റ്സാണ് കിടക്കുന്നത് നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് ഈ ഫോൺ കാഴ്ച വെക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് സാധിക്കുന്നതാണ് ഇപ്പം ഡെയിലി യൂസ് ചെയ്യുമ്പോ ചെല ചെറി ലാക്സ് ഫീലെയ്യുന്നുണ്ട് എന്തായാലും കൊഴപ്പവില്ലാ അത്യാവശ്യം നല്ല രീതിയിലാണ് പിന്നെ പൊക്കും പിന്നെ ഇത് ഭയങ്കരായിട്ട് ഹീറ്റാവുന്നുണ്ട് അതായത് ഓവറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെല് ഹീറ്റാവുന്നുണ്ട് ബാറ്ററി ബാക്കപ്പിനെക്കുറിച്ച് പറയാണ്ട അത്യാശ്യം നല്ല രീതിയില ക്കെ കിട്ടുന്ന്ണ്ട് ഒരു ഒരു വൺ ഡേ നമ്മള് ചാർജെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമ്മടെ യൂസേജിനുള്ളത് നമുക്ക് കിട്ടുന്നൊണ്ട് അതൊക്കെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിതിനകത്ത് പറയാനുള്ളത് പിന്നെത് സാങ്കേതികമായിട്ട് മാറിട്ടുണ്ടന്ന് വെച്ചിട്ടുണ്ടെങ്കില് പല ഫോൺസ് ഇപ്പം കംമ്പെയർ ചെയ്യുവാണെ ഇപ്പ ഇത് ഈ സമയം യൂസെയ്ത് ഞാനിപ്പം ഒരു ഐഫോൺ ആ ഒരു രീതിയിലേക്ക് യൂസ് ചെയ്യാനൊട്ട് ചെല്ലുവാണെങ്കിൽ കമ്പാരറ്റീവ്ലി വച്ച സിസ്റ്റംസ് ആപ്പ്സ് ജെസ്റ്റേ്സ് ഫുൾ ഫോൾഡേഴസെല്ലാം ഇതാണ് ഡിഫറണ്ടാണ് ഞാനിപ്പൊര് ആൻഡ്രോയിഡ് യൂസ ആയത് കൊണ്ട് പെട്ടെന്ന് തൊടക്കത്തിന്പ്പോ സാംസങ്ങിലേക്ക് പോണെങ്കിലും തൊടക്കത്തിൻ്റെ ഇതുണ്ടെങ്കിൽ പോലും പക്ഷെ എനിക്ക് അതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ പോക്കോടെ ഫോണാണെങ്കി പോലും അത്യാശ്യം നല്ല രീതിയില് സെക്യൂരിറ്റി ഇവര് പ്രൊവൈഡ ചെയ്യാ സെക്യൂരിറ്റി അങ്ങനുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരായിട്ട് ഇമ്പ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫോണാണ് അപ്പ സെക്യൂരിറ്റി അങ്ങനെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഐ തിങ്കിറ്റ്സ് റിയൽ ഗൂഡ്ത് നല്ലതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ പ്രൊസസ്സർ നോട്ട് ബാഡ് അത്ര പറയാൻ പറ്റതോൾ ഗെയിമിംഗ് ഫോണാണ് പൊതുവ ഫോക്കോ എന്ന് പറയുന്നത് പക്ഷെ അത്ര നല്ല ഗെയിമിംഗ് ഫോണിൻ്റെ ഒരു പെർഫോമൻസ് ഈ ഒരു ബഡ്ജറ്റ് ഫോൺ കാരണം ഇത് എറൗണ്ട് ഒരു സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് ഒരു ബഡ്ജറ്റ് കിട്ടുന്നൊരു ഫോണാണ് ബഡ്ജറ്റ് ഫ്രണ്ടിലി ആയിട്ടുള്ള ഫോണാ അപ്പ ആ ഒരിത് വച്ച് നോക്കവാണെ എനിക്കത്ര പെർഫോമൻസിൻ്റെ കര്യത്തില് എനിക്ക് അത്ര ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് അത്ര നല്ല സാറ്റിസ്ഫൈഡായിട്ടൊന്നുല്ല പെർഫോമൻസിൻ്റെ കാര്യത്തില് അല്ലാതെ നോക്കുവാണെങ്കില് അത്യാവശ്യം ഡെയിലി യൂസേജ് ബട്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ക്യാമറ പെർഫോമൻസാണ് കാരണം ഒരു ഗെയിമിങ് ഫോണില് ഇത്ര അത്യാവശ്യം നല്ല രീതിയിലൊ ക്യാമറ പെർഫോമൻസ് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യല്ല ഇപ്പ ക്യാമറ പെർഫോമൻസ് നോക്കുവാണെങ്കി എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് ഫോണാണ് കമ്പേർ ടു ഒരു റെഡ് ദാറ്റ് മൈ ഓൾഡ് റെഡ്മി നയൻ എ വച്ച് നോക്കുവാണെങ്കില് പെർഫോമൻസ്ന്ന് റെഡ്മി നയനാണ് നല്ലത് നമുക്ക് ആണെങ്കില് അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിൽ ആണ് ഇത് പോകുന്നത്ന്ന് കരുതുന്നത് അപ്പം സാങ്കേതികമായിട്ടുള്ള കൃത്കള് സാങ്കേതികമായിട്ടുള്ളത് മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്ക ന മറ്റേ ഫോൺന്ന് വച്ചിട്ടുണ്ടെ കൊറച്ച് നല്ല ലിമിറ്റഡായിട്ടുള്ള ഓപ്ഷൻ പക്ഷേ ഇതിനകത്ത് കുറച്ചൂടെ ഫീച്ചഴ്സ് നമ്മക്ക് എനേബിൾഡാണ് ഫീച്ചേഴ്സൊണ്ട് കൊറച്ചൂടെ മറ്റ ഫോണന്ന് വെച്ച് ഞാൻ അറിയാത്ത കൊറച്ച് കാര്യങ്ങൾ ഇപ്പോ ഇവ എവൻ കൺട്രോൾസ് ജസ്റ്റേ്സ് സെറ്റിങ്സ് ഡി്പ്ലേ സെറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെച്ച് നോക്കുവാണെങ്കില് അത്യാശ്യം നല്ല രീതിമൻ് ഇതിൻ്റെ ഒരു സിസ് യുഐ എനിക്കിഷ്ടമാണ് പിന്നെ അറൗണ്ട് വൺ ജിബിയുടെ ഒരു അപ്ഡേറ്റും ത്രീ ഹൺ്രഡ അറൗണ്ട് ത്രീ ഹൺഡ്രഡ് ഒരു സിസ്റ്റം അപ്ഡേറ്റ് ഞാനിപ്പ ചെയ്തിട്ടുണ്ടിപ്പം പെർഫോമൻസ് കംമ്പയർ ടു ദാറ്റ് റെഡ്മി നയൻ ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് മെയിൻലി റിയലൈ ടു ദ ക്യാമറ പെർഫോമൻസ് ഒരു ബഡ്ജറ്റ് ഫോണില് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലായിട്ടുള്ള ക്യാമറ പെർഫോമൻസാണ് ഇതിന് കൊടുത്തേക്ക അപ്പ അത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല രീതില് ഭയങ്കരമായിട്ട് ഈ ഫോണിൻ്റെ പെർഫോർമൻസ് ഇഷ്ടപ്പെട്ടിട്ടൊണ്ട് അപ്പ അതാണ് ഞാൻ പറയുന്ന അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ഫോണിൽ വെച്ച് നോക്കുവാണെങ്കിലെനിക്കിതിനകത്ത് കൊറച്ചൂടെ നല്ല എഫക്റ്റീവ ഇത് യൂ ചെയ്യാൻ പറ്റിറ്റുണ്ട് കാരണം ഇതിനകത്ത് കൊറച്ചുള്ള ഫീച്ചേഴ്സിനെക്കൊറച്ചൊക്കെ എനിക്ക് കൊറച്ചൂടെ നൈസാട്ട് അറിയാൻ സാദിച്ചിട്ടുണ്ട് അതായത് മാക്സിമം നല്ല രീതിയില് ഇപ്പ യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം നല്ല രീതിക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് ഞാനിപ്പം മെയിനായിട്ട് നോക്കുന്ന അപ്പം അത് വെച്ച് നോക്കുവാണെങ്കില് ഈ ഫോണ് നല്ല രീതിയിലാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെല് മറ്റ് ഫോൺ വെച്ച് നോക്കുവാണെങ്കില് നല്ലതാണ് പക്ഷെ പെർഫോമൻസിൻ് കാര്യത്തില് അത്രയും ഇത് ആവറേജാണ് ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യത്തിലെനിക്ക് ഭയര സാറ്റിസ്ഫൈഡാണ് ബട്ട് ബാറ്ററി ബാക്കപ്പ് അത്യാവശ്യം നല്ല രീതിയി കിട്ടുന്നുണ്ട് പിന്നെരു പ്രീമിയം ലുക്ക് വരുന്നൊരു അതൊരു ഫോണാണ് കാരണം ജെസ്റ്റ് ബാക്ക് നോക്കുവാ അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കാണ് പിന്നെ ഹാൻഡ്ലെയ്യാനും വല്യ ഇഷ്യു ഇല്ല ഒരു ശെരി ടോൾ ആണ് ബട്ട് നമുക്ക് ഇൻഹാൻഡ് ഫീഡ് കിട്ടുന്ന ഒരു നല്ല നൈസായിട്ടൊരു ഫോണായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിലാണെന്നാണ് പറ്റുന്നോകുവാണെങ്കിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെനിക്ക് വല്യ ഡെവലപ്മെൻറ്റ്സൊന്നും തോന്നിട്ടില്ല പക്ഷെ എന്നാലും അത്യാവശം കമ്പ്യറ്റ് റ്റു റെഡ്മി നയൻ നല്ല രീതിലാണ് തോന്നിട്ടു പക്ഷെ ഇത് നല്ലൊരു ഫോണായിട്ടാണ് ഐ വിൽ കൺസേസ്